ഞാൻ ഒരു ആർട്ട് എക്സിബിഷൻ ഒക്കെ സ് എന്താണ് പറയുക സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള നമുക്ക് പ്രചോദനം ഉണ്ടാകുന്ന രീതിയിലാണ് അവർ ആർട്ട് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പലതരം പെയിൻറ്റിങ്ങുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര എന്താണ് പറയുക കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷവും കാര്യങ്ങളും ഒക്കെയായിരിക്കും ഉണ്ടാവുക കാരണമെന്നു വെച്ച് കഴിഞ്ഞാൽ അതേപോലെ വരയ്ക്കണം അതേപോലെ നമുക്ക് ഉണ്ടാക്കണം അങ്ങനത്തെ കുറേ ചിന്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതൊക്കേ വരയ്ക്കാൻ വേണ്ടിയിട്ടും ഇതൊക്കെ ഇങ്ങനത്തെ കലാരൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ എന്ത് ചെയ്തു അതിൻ്റെയെല്ലാം ഫോട്ടോ എടുത്ത് അത് നോക്കി ഒന്നു രണ്ടെണ്ണം ഞാൻ വരച്ചു നോക്കിയിട്ട് വരെയുണ്ട് വലിയ പെർഫെക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല കാരണമെന്തെന്നു വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വലിയ വലിയ ആൾക്കാരാണല്ലോ വരയ്ക്കുന്നത് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അത് വരയ്ക്കണമെങ്കിൽ കുറേ സമയവും വേണം നമുക്ക് കുറേ സാവകാശം കുറേ സാധനങ്ങൾ കാര്യങ്ങളൊക്കേ വേണ്ടിവരും അപ്പോൾ അതൊന്നും വലിയതായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നല്ല പെർഫെക്ഷനോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നാലും ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്കൊരു പ്രചോദനമായിട്ടാണ് തോന്നിയത് കാരണം ഇതൊക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനത്തെ എക്സ്പോയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്